ഹലോ ഇത് സോമറ്റോ അല്ലെ നമ്മള് കണ്ണൂര് പെർളശ്ശേരിയിൽ നിന്ന് വിളിക്കുവാണെ നമ്മള് പിസക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിസക്ക് ഓർഡറ് കൊടുത്തിട്ടുണ്ടായിരുന്നു പത്തര മുതൽ പതിനൊന്നര വരെയാണ് നിങ്ങള് ടൈംമ് കാണിച്ചത് ആ സമയത്ത് എന്തായാലും പെട്ടെന്ന് എത്തിക്കാൻ പറ്റൂലെ കാരണം ഇവിടെയൊരു കുട്ടിൻ്റെ പിറന്നാൾ ഫങ്ക്ഷൻ നടന്നുകൊണ്ടിരിക്കലാണ് അപ്പോൾ ഇവിടത്തേക്ക് പിസ അവശ്യമുണ്ട് നൂറു പേർക്കുള്ള പിസയാണ് പറഞ്ഞത് നിങ്ങൾക്ക് എപ്പം എത്തിക്കാൻ പറ്റും നിങ്ങള് ലേറ്റ് ആകില്ലല്ലോ അല്ലേ നമുക്ക് എത്രയും പെട്ടെന്ന് വേണം അതുകൊണ്ടാണ് വലിയ ആൾക്കാരുടെ പരിപാടിയാണ് നൂറ് ആൾക്ക് ഉള്ള പിസയും പിന്നെ അതുപോലെ അമ്പത് പേർക്ക് സാൻവിച്ചും പറഞ്ഞിട്ടുണ്ട് ആദ്യം നൂറാൾക്കുള്ള പിസ എത്തിയാൽ മതി എന്നിട്ട് മതി അമ്പത് പേർക്കുള്ള സാൻവിച്ച് നിങ്ങൾക്ക് വേഗം കൊണ്ടുതരാൻ പറ്റിലെ അല്ലെ ഞങ്ങള് വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർളശ്ശെരിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം കണ്ണൂര് ഭാഗത്തേക്ക് വരുന്ന വഴിക്ക് കീഴറ കഴിഞ്ഞ് തൃക്കവല എത്തുന്നതിന് മുന്നേ ചക്കരകില്ല് ഒരു റോഡുണ്ട് ആ വഴിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു നൂറു മീറ്ററേയുള്ളു അവിടെ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ശ്രീവൽസം എന്നു പേരുള്ള വീട് കാണാൻ പറ്റും അപ്പോൾ ആ വീട്ടിലാണ് ഡെലിവറി ചെയ്യേണ്ടത് അപ്പം നിങ്ങളൊന്ന് എത്രയും പെട്ടെൻ കൊണ്ടുതരണം കെട്ടോ അത് ഡിലെ ആയി കഴിഞ്ഞാൽ ഞങ്ങള് ഈ പരിപാടിയുടെ മൊത്തം ബാധിക്കും കാരണം എല്ലാവരും കുറെ ആൾക്കാര് പുറത്ത് നിന്ന് ഒക്കെ വന്നിട്ടുണ്ട് കുറെ വിശിഷ്ടതിഥികൾ ഉള്ള പരിപാടിയാണ് മന്ത്രിൻ്റെ മോളുടെ കല്യാണം ആണ് അപ്പം മോളുടെ കുട്ടിൻ്റെ പിറന്നാള് പരിപാടിയാണ് തലേ ദിവസം നാളെയാണ് കല്യാണം അപ്പം നാളേക്കുള്ള ഫുഡ് നാളെ ഓർഡർ ചെയ്യും അപ്പം നിങ്ങൾക്ക് അതും വലിയ തിരക്കില്ലാണ്ട് കൊണ്ടുതരാൻ പറ്റുമല്ലോ അല്ലേ കാരണം ഞങ്ങളത് മുൻകൂട്ടി പറയുന്നട് എന്താന്നുവച്ചു കഴിഞ്ഞാൽ മന്ത്രിൻ്റെ മോൾടൊക്കെ പരിപാടി ആവുമ്പം അത് ലേറ്റ് ഇല്ലാണ്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുതരാൻ പറ്റണം അപ്പം നിങ്ങളത് വേഗമാക്കിതരണം പിന്നെ നിങ്ങള് മേൽ വിലാസം മനസിലായല്ലോ അല്ലേ പെർളശ്ശേരിയിൽ നിന്ന് വരുന്ന വഴിക്ക് കാടാച്ചിറ എത്തുന്നതിന് ഒക്കെ മുന്നേ കണ്ണൂര് ഭാഗത്തേക്ക് പോകുമ്പം വലത്ത് സൈഡിലേക്ക് ചക്കരക്കള്ളി റോഡുണ്ട് ചക്കരക്കള്ളി റോഡില് വരുമ്പോൾ നൂറ് മീറ്ററ് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ശ്രീവൽസം എന്ന് പേരുള്ള വീട് വീട്ടിലാണ് നിങ്ങള് ഭക്ഷണം എത്തിക്കേണ്ടത് പിന്നെ നിങ്ങള് കംപ്ലിറ്റിലി വെജ് ആയിരിക്കുമല്ലോ അല്ലെ കാരണം മന്ത്രി വെജിറ്റേറിയൻ ആണപ്പം ആള് വിളിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ വെജ് ഫുഡാണ് ഓർഡറ് ചെയ്തിട്ടുള്ളത് അപ്പം നോൺ വെജ് ഒന്നും വേണ്ട പിന്നെ അതുകൊണ്ട് കംപ്ലിറ്റിലി വെജ് ആയിരിക്കണം അപ്പം അതൊന്ന് നിങ്ങള് ശ്രദ്ധിക്കുമല്ലോ അല്ലേ നമ്മള് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും ഒന്ന് പറഞ്ഞതാണ് അഥവാ മാറി പോകേണ്ട കാരണം ഒരു വലിയ മുഖ്യതിഥികളൊക്കെ പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് നമുക്ക് അത് ഉറപ്പ് വരുത്തണമ അത് വെജ് ആണെന്നുള്ള കാര്യം സാൻവിച്ച് അമ്പത് എണ്ണം പിന്നെ പിസ നൂറെണ്ണം പിസ്സയിൽ നിങ്ങള് എന്തൊക്കെയാണ് നോർമലി ഇടുന്നത് ഷെസോൺ പിസ ആണ് പറഞ്ഞിട്ടുള്ളത് ഫ്ലേവറ് അപ്പോൾ ഷെസോൺ പിസ്സയിൽ നിങ്ങള് എന്തൊക്കെയാണ് ഇടുന്നത് മയണെസ് പറ്റും പിന്നെ സൊസ് പറ്റും പിന്നെ മഷ്റൂമ് കുഴപ്പമില്ല പിന്നെ അതുപോലെ ബ്രോക്കോളി കോളിഫ്ലവറ് അതൊന്നും പറ്റില്ല അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഇടാൻ പറ്റും പക്ഷെ നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസെല്ലാം മാക്സിമം ഒഴിവാക്കുക പിന്നെ മുട്ട വേണ്ട മുട്ടെയൊന്നും അവര് യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങള് ലേറ്റ് ആകാണ്ടു കൊണ്ട് തരുമല്ലോ അല്ലേ